ഒരു വിദേശി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പാരമ്പര്യവും സാംസ്കാരികവും ഒക്കെ നമ്മൾ സംസ്കാരമൊക്കെ അവരോട് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയിപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഭാഷ മലയാളമാണ് മലയാളം ഭാഷയാണ് നമ്മൾ സംസാരിക്കുക പൊതുവെ എല്ലാവരും കേരളീയരൊക്കെ മലയാള ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ മതത്തിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് മതമാണുള്ളത് മതത്തിനെക്കുറിച്ച് ശരിക്കും പറയാൻ പാടില്ല പക്ഷെ ഇതിൽ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് പറയുന്നുയെന്നേ ഉള്ളു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് അങ്ങനെ മൂന്ന് മതക്കാരാണ് ഉള്ളത് പിന്നെ അപ്പോൾ മൂന്നുപേരുടേയും ആ ആചാരങ്ങളൊക്കെ വ്യത്യാസമാണ് ഇപ്പം ക്രിസ്ത്യാനികളുടെ കല്ല്യാണം പോലെ അല്ല ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ പോലെ അല്ല മുസ്ലിംസിൻ്റെ ഹിന്ദുക്കളുടെയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി താലി കെട്ടി പൂമാലയൊക്കെ ഇട്ട് അങ്ങനെയുള്ള കല്ല്യാണമാണ് ഹിന്ദുക്കളുടെ മറിച്ച് ക്രിസ്ത്യാനികളുടെ ചോദിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽപ്പോയി കുറെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എന്താ പറയുക അവർ മിന്നുകെട്ടുകയെന്നു പറയാം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അവർക്കെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കല്ല്യാണമാണ് പിന്നെ എന്താ പറയുക കെട്ടുകല്ല്യാണം ഒത്തുകല്ല്യാണം അങ്ങനെയൊക്കെ പറയും പിന്നെ മുസ്ലിംസിനെ വച്ച് നോക്കുമ്പോൾ അവർക്ക് രാത്രിയാണ് കല്ല്യാണം കഴിക്കുക അതായത് പിന്നെ നിക്കാഹെന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവരെന്നു പറഞ്ഞാൽ ആ അവരതിന് മെഹർ എന്നു പറയുക അവരത് ഇട്ടിട്ടാണ് അവർ കല്ല്യാണം കഴിക്കുക പിന്നെ നമ്മൾക്കിങ്ങനെ ആഘോഷങ്ങളെന്തൊക്കെയാണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഉണ്ട് വിഷു ഉണ്ട് ഓണമുണ്ട് പെരുന്നാളുണ്ട് ഈദുൽ ഫിത്തറുണ്ട് അങ്ങനെ പല പരിപാടികളും ഉണ്ട് അങ്ങനെ ക്രിസ്തുമസെന്നു വച്ചിട്ടുണ്ടങ്കിൽ ഉണ്ണിയേശു പിറന്നത് പിന്നെ വിഷുയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണനെ നമ്മൾ അതായത് കൃഷ്ണനെ കണികാണുക അങ്ങനെയുളളത് അങ്ങനെയുള്ള പല പല ആഘോഷങ്ങൾ ഈദുൽ ഫിത്തറെന്നു പറഞ്ഞാൽ അവരു കുറെ പ്രാർത്ഥിക്കും അങ്ങനെയുള്ളതൊക്കെ